ആ കേക്കുന്ന് ആ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ രാവിലെ എന്തായിരുന്നു കഴിച്ച രാവിലെ എന്തേലും കഴിച്ചായിരുന്നോ ഓക്കെ ഓക്കെ ഗുഡ് അപ്പം നിങ്ങള് പാല് നേന്ത്രപ്പഴം മുട്ട രാവിലെ കഴിച്ചോളൂ പിന്നെ മുട്ട കഴിക്കുന്നത് നല്ലത് ആണ് എഗ്ഗ് പിന്ന അതേപോലെ ഉച്ചത്തേയ്ക്ക് വെജ് അയി അതിൻ്റ എടയ്ക്ക് ഉച്ചയ്ക്ക് മുമ്പ് വെജിറ്റബിൾസിൻ്റ എന്തെങ്കിലും വെജിറ്റബിള് വെറുതെ കട്ട് ചെയ്യോ അല്ലെങ്കില് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതോ കഴിക്കാം പിന്നെ സൂപ്പ് പോലെ എന്തെങ്കിലും വെജിറ്റേറിയൻ്റ സൂപ്പോ അങ്ങനെ എന്ത് എന്ത് വേണേലും കഴിക്കം നമ്മള് നന്നായിട്ട് വെള്ളം കുടിക്കണം അയിൻ്റ എടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മീൽസ് ചിക്കൻ മതി പിന്നെ റൈസ് ആണോ എന്ത് ആണ് കഴിക്കുന്നത് ചപ്പാത്തി ആണോ റൈസ് ആണോ കഴിക്കുന്നത് അപ്പം റൈസ് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കണം അത് ഭയങ്കര ഇത് ആണ് ഫാറ്റ് കൂടുതലാ നമ്മക്ക് ഏഴ് മണിക്ക് മുൻപ് നമ്മുടെ പിന്ന ഡിന്നറ് കഴിക്കാൻ ശ്രമിക്ക അപ്പം നിങ്ങള് ഡിന്നറില് പിന്ന ചപ്പാത്തി ഐറ്റംസ് അതായത് വീറ്റിൻ്റ വീറ്റ് ആയിട്ട് ഇള്ളത് എന്തെങ്കിലും വീറ്റിൻ്റ എന്തെങ്കിലും ആയാലും കുഴപ്പം ഇല്ല വീറ്റിൻ്റ ദോശയോ അല്ലെങ്കില് പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ ഏതെങ്കിലും അല്ലാതെ റൈസ് കഴിക്കണ്ട കൂട്ടാം കൂട്ടാം കൂട്ടാം ഇത് ഇപ്പം നിങ്ങടെ വെയ്റ്റ് നോക്കീട്ട് നിങ്ങൾ ഇപ്പം കഴിച്ചോ വെയ്റ്റ് വളരെ നിങ്ങക്ക് കുറവ് ഒരു ഇങ്ങനെ നോക്കുമ്പം ഒത്തിരി കൂടുതലും ഇല്ല ഒര് പാകത്തിന് ആണ് പോകുന്നത് കഴിച്ചോളൂ അതിന് വലിയ കുഴപ്പം ഒന്നും ഇല്ല പിന്നെ എന്തായാലും വെള്ളം മസ്റ്റ് ആണ് വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത് ആണ് വെള്ളം നമ്മടെ ആരോഗ്യത്തിന് എനർജിക്ക് നല്ലത് ആണ് അതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലും നമ്മടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ചിക്കൻ ചിക്കൻ ഐറ്റംസ് വേവിക്ക്യാ വേവിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൂപ്പ് പോലെയോ അല്ലാതെയോ എന്തെങ്കിലും ഒക്കെ ആക്കി കഴിക്കുക ഓയിലി ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക ഫ്രൈ ചെയ്യുമ്പം പിന്നെ നമക്ക് അതായത് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കൂടുമ്പം നമക്ക് ഫാറ്റ് കൂടാൻ ചാൻസ് കൂടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഈ ഓയിലി നമ്മൾ ഇങ്ങനെ വറവ് ഇട്ടതോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ഒന്നും കഴിക്കാതിരിക്കുക അത് ഒക്കെ ഇഗ്നോറ് ചെയ്യുക അല്ലാതെ എങ്ങനെ വേണെങ്കിലും കഴിക്കാം അപ്പം നിങ്ങള് അങ്ങന ചെയ്ത് നോക്ക് നന്നായി വെള്ളം കുടിക്കണം വെള്ളം മസ്റ്റ് ആണ് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇങ്ങനത്ത കാര്യങ്ങൾ ഇന്ന് എന്തായാലും ഇങ്ങനെ ഒക്ക പോട്ടെ നാളത്തൊട്ട് നമക്ക് അത് ക്ലിയറ് ചെയ്ത് തരാം ആ ഓക്കെ താങ്ക്യൂ